ഹലോ ആ ഇത് പിന്നെ ടെക്സ്റ്റൈൽസിലെ ആളല്ലേ ഓക്കെ സാർ ഞാൻ ഉണ്ടല്ലോ എനിക്കീ ഓണത്തിന് കുറച്ച് ഡ്രെസ് വേണം അപ്പം ആ എമൗണ്ടൊക്കെ എത്ര എത്ര ആണ് അവിടെ പിന്നെ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സെന്ന് അറിയാൻ വേണ്ടീട്ട് എല്ലാവർക്കും ഉള്ളത് അതായത് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് വരെ ഉള്ളത് ഫാമിലിക്ക് മുഴുവൻ ആയിട്ട് എടുക്കാൻ ആയിരുന്നു ഇപ്പം ഞാൻ ബാംഗ്ലൂരിന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ഓണം ആയിട്ട് പിന്നെ റേറ്റ് കുറവൊന്നും ഇല്ലേ ഓക്കെ അങ്ങനെ ഉള്ള ഡിസ്കൗണ്ടേ ഉള്ളൂലേ ഓക്കെ ഇപ്പോഴത്തെ ഓണത്തിന് പുതിയ ട്രെൻഡി മോഡൽ എന്തൊക്കെയാണ് ഈ ലാഡീസിൻ്റെ അല്ല ലേഡീസിൻറ്റേൽ എന്തൊക്കെ ആണ് വെറൈറ്റി ഐറ്റംസ് അറിയാമോ പുതിയത് മോഡൽ വന്നിട്ടുണ്ടോ ഞാൻ ഈ ഇത്തിരി ട്രഡീഷണൽ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ സാരി അതായത് സെറ്റ് സാരി അല്ലാതെ സെറ്റിൻ്റെ പോലത്തന്നെ ഡ്രസ്സ് എന്നാൽ മോഡേൺ ആയിരിക്കണം എന്നാൽ ട്രഡീഷണൽ ആയിരിക്കണം അങ്ങനത്തെ പുതിയ പുതിയ ട്രെൻഡി മോഡൽ വന്നിട്ട് ഉണ്ടോന്ന് ഈ സൽവാർസ് ഒന്നും ഇല്ലേ സെറ്റിൻ്റെ തന്നെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് എത്ര ടൈം വരെ ഉണ്ടാവും അവിടെ ഞങ്ങൾ അവിടെ എപ്പം എത്തിന്ന് റീച്ച് ആവുന്നത് എപ്പോഴാന്ന് ഞങ്ങൾ നേരെ വന്നിട്ട് അവിടന്ന് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും ഒരു പത്തേകാൽ ആവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറയാണെങ്കീൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ ഓക്കെ ഞങ്ങൾ വരുമ്പം വിളിക്കാട്ടോ ഓക്കെ താങ്ക് യൂ